എല്ലാ മതത്തിലും അവരവരുടേതായ ആചാരങ്ങളും കാര്യങ്ങളൊക്കെയുണ്ടാകും അവരവര് അവരവരുടെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഇപ്പോൾ ഓരോ രീതിലായിരിക്കും വ്യത്യസ്തമായ രീതികളിലായിരിക്കും പിന്നെ ഈ അമ്പലങ്ങളിലക്കെ കാണാം ശാന്തിമാര് കാര്യങ്ങള് അവര് പൂണൂല് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതും അവരുടെ ദിവസവും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോരോ ആചാരങ്ങളും വെള്ളത്തിൽ മുങ്ങുന്നതും സൂര്യനെ ഇതാക്കുന്നതും അതുപോലെ തന്നെ മതപരമായ കുറെ കാര്യങ്ങളും പിന്നെ ഈ പൂജ ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ പൂണൂല് കാര്യങ്ങളൊക്കെ ധരിക്കുന്നതിൻ്റെയും അതിൻ്റെ ആചാരങ്ങളും കാര്യങ്ങളും പിന്നെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതിൻ്റെയും അതുമിതുവൊക്കെ ആയിട്ട് ഓരോന്നിനും ഓരോരോ ആയ ആചാരങ്ങളും കാര്യങ്ങളും അതുപോലെ തന്നെ ഓരോന്നിനും ഓരോരോ ആവശ്യങ്ങൾക്കുമായിയിട്ടുള്ള നോയമ്പുകള് കാര്യങ്ങള് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളുമൊക്കെ സെപ്പറേറ്റലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാടത്തും അത് ഇങ്ങനെ ആചാരങ്ങളായിട്ടും അപ്പം പണ്ട് തൊട്ടിങ്ങനെ കൊണ്ട് നടക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം